എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന നേട്ടമെന്ന് വെച്ചാൽ അതിൽ പ്രധാനമായുമാണ് അതിനിപ്പോൾ ഒരു എനിക്കെന്തോ ഓർമ്മിക്കാനും സന്തോഷം തരാനും നൽകുന്ന ഒരു പ്രത്യേകതരം നേട്ടമായിരുന്നു ഞാന് ആദ്യം ആദ്യം പഠിച്ച സ്കൂളില് ഏഴ് വരെ ഉണ്ടായിരുന്നുള്ളൂ ആ ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ ഏഴാം ക്ലാസിൽ പഠിക്കുന്നവരാണ് സ്കൂൾ ലീഡർ ആവുക അപ്പോഴേക്ക് ടീച്ചർ ക്ലാസ്സിൽ വന്ന് ചോദിച്ചു ആർക്കൊക്കെ സ്കൂൾ ലീഡർ ആവണം ആർക്ക് താല്പര്യമുണ്ടെന്ന് അന്ന് പലരും പലരുടെയും പേര് പറഞ്ഞു കൂട്ടത്തില് എൻ്റെ പേരും പറഞ്ഞു ഞങ്ങൾ ഒരു നാലു പേര് അഞ്ചു പേര് സ്ഥാനാർത്ഥികൾ ആയിരുന്നു എല്ലാവരുടെയും വിദ്യാർത്ഥികളാണ് തിരഞ്ഞെടുക്കുന്നത് എങ്കിലും പക്ഷേ എൻ്റെ സ്കൂളില് ടീച്ചർമാരായിരുന്നു സ്കൂൾ ലീഡറെ തിരഞ്ഞെടുക്കുക ഞാൻ അത്ര അത്ര നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഒന്നുമായിരുന്നില്ല അതുകൊണ്ടല്ല മോശം മാത്രം മോശം കുട്ടിയല്ല എങ്കിലും തീരെ പഠിപ്പില്ലാത്ത ഒരു കാര്യമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു പക്ഷേ ടീച്ചർമാർ അന്ന് സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തത് എന്നെയായിരുന്നു അതൊരു സന്തോഷമായിരുന്നു കാരണം ടീച്ചർമാരുടെ ഇടയില് ഒരു വിലയുണ്ടെന്നും അവർക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നും അപ്പോൾ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ പല നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ് അത് കാരണം ആ ടീച്ചർമാരുടെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ എന്ന നേട്ടം അതിന്നും ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷകരമാണ്